ഇപ്പോൾ പാചകം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടും അതിനെപ്പറ്റി നല്ല രീതിക്ക് തന്നെ എന്താ പറയുക നല്ല രീതിക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയുന്നതുകൊണ്ടും വീട്ടിലായിക്കോട്ടെ ഇപ്പോൾ സുഹൃത്തുക്കളായി അവർക്കായ്ക്കോട്ടെ എല്ലാവർക്കും തന്നെ എൻ്റെ പാചകം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇഷ്ടമാണ് കാരണം ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡുകളൊക്കെ കഴിക്കാനെല്ലാവർക്കും നല്ല ഇന്ററസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതൊരു എന്താ പറയുക വ്യവസായമായിട്ടൊക്കെ എന്താ പറയുക തുടങ്ങാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോയെന്നു ചോദിച്ചാൽ ഇവരിങ്ങനെ എൻ്റെ ഫ്രണ്ട്സും വീട്ടുകാരൊക്കെ പറയുമായിരുന്നു ഇത് പറയുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ഹോട്ടലോ കാര്യങ്ങളോ അങ്ങനെയെന്തെങ്കിലും ഒക്കെ തുടങ്ങികഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളത് ഒരു തമാശ രീതിയിലേ കണ്ടിരുന്നുള്ളൂ അല്ലാണ്ട് നമുക്കങ്ങനെയൊരു ഇത് ഇതുവരെ തോന്നീട്ടില്ല പിന്നെ ഇടയ്ക്കിങ്ങനെ ആലോചിച്ചിരുന്നു കോഴിക്കോട് എവിടെയെങ്കിലും നല്ലൊരു ആൾത്തിരക്കുള്ള സ്ഥലത്ത് അത്യാവശ്യം നല്ലൊരു ഷോപ്പ് തുടങ്ങിയാൽ നല്ലതായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നു പക്ഷെ നമ്മളതിനെപ്പറ്റി എന്താ പറയുക കൂടുതലൊന്നും അങ്ങോട്ട് ഇതാക്കാൻ നിന്നില്ല കാരണം അപ്പോൾ നമുക്ക് പറ്റിയൊരു ഫീൽഡ് കുക്കിംഗ് ആണെന്ന് തോന്നിയിട്ടില്ല സോ അങ്ങനെ നമ്മളതിനെപ്പറ്റി അധികം ചിന്തിച്ചില്ല